മാധ്യമങ്ങളെന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾ എപ്പോഴും ശരിയായ വാർത്തകൾ മാത്രമല്ല പ്രചരിപ്പിക്കുന്നത് തെറ്റായ വാർത്തകൾ കൂടി പ്രചരിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് തന്നെ നമുക്ക് അത് ലൈവിലൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അത് ഒരു നല്ല ഗുണമാണ് ഓൺലൈൻ ന്യൂസായിട്ടും വാർത്തകൾ ടിവിയിലൊക്കെ വരുന്ന വാർത്തകളിലൊക്കെ കറക്റ്റ് ലൈവായിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ലൈവ് ആയിട്ട് നമുക്കത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് പിന്നെ പത്രത്തിനേക്കാളും നല്ലത് ടി വി വാർത്തകളും ഓൺലൈൻ ന്യൂസ് ഒക്കെ തന്നെയാണ് പത്രത്തിനെക്കാളും നല്ലത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്രത്തിൽ ഇപ്പോൾ തലേദിവസത്തെ കാര്യമാണ് നമ്മൾ പിറ്റേ ദിവസമാണ് നമ്മൾ പത്രത്തിൽ വായിക്കുന്നത് എന്നാൽ ടി വിയിലും ഓൺലൈൻ ന്യൂസൊക്കെ ആകുമ്പോൾ കറക്റ്റ് കറക്റ്റ് ടൈമിൽ ആ ടൈമിൽ തന്നെ നമുക്ക് നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ലൈവ് ആയിട്ട് ഒക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട് അതൊരു നല്ല ഗുണം ആയിട്ട് തോന്നുന്നുണ്ട് പിന്നെ പത്രങ്ങൾ പ്രശസ്തമായ ചില പത്രങ്ങളെന്ന് പറയുമ്പോൾ മാതൃഭൂമി മലയാള മനോരമ ഇത് രണ്ടുമാണ് കുറച്ചുകൂടി നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്തെന്ന് വച്ചാൽ ദേശാഭിമാനി അതിലൊക്കെ കൂടുതലായിട്ടും പാർട്ടി ബേസ്ഡ് ആയിട്ടുള്ള വാർത്തകളാണ് കൂടുതലായിട്ട് ഉണ്ടാവുക മാതൃഭൂമി മലയാളം മനോരമയൊക്കെ ആകുമ്പോൾ എല്ലാ വാർത്തകളും ഉൾക്കൊണ്ടിട്ട് വരുന്ന പത്രമായിട്ട് തോന്നിയിട്ടുണ്ട് ദേശാഭിമാനിയൊക്കെ വെറും പാർട്ടി ബേസ്ഡ് ആയിട്ടുള്ള മാത്രം ഉണ്ടാകുന്ന പത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ചാനൽ ട്വന്റി ഫോർ മറ്റ് ചാനലിനെ അപേക്ഷിച്ചിട്ട് ട്വന്റി ഫോറിലാണ് കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് വിവരങ്ങൾ എത്തുന്നത്